ഇപ്പം വ വയനാട് ജില്ലയിൽ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഗതാഗത സൗകര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ റോഡ് മാർഗം ഉള്ളപ്പോൾ ഗതാഗതങ്ങൾ മാത്രം ഉള്ളൂ അഥവാ ബസ്സ് നമ്മുടെ വണ്ടി ഓട്ടോറിക്ഷ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് നമ്മൾ പോവാനേ നമുക്ക് പറ്റുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ പാത ഇപ്പം ഇപ്പം നമുക്ക് കൂടുതലായിട്ടും നമുക്ക് എൻ എച്ച് റോഡുകളാണ് മലയോര ഹൈവേ അങ്ങനത്തെ ഹൈവേകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് റോഡ് മുഖേന പോവാൻ വേണ്ടി പറ്റും പിന്നെ വിമാനത്താവളങ്ങളൊന്നും ഇല്ല വയനാട്ടിൽ റെയിൽവേ റെയിൽവേ സ്റ്റേഷനോ കാര്യങ്ങളൊന്നുമില്ല ഇപ്പം റെയിൽവേ പാളം ഒന്നും ഇത് വരെ ആരും അങ്ങനെ കണ്ടുപിടിക്കലോ കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഒന്നാമത് ചുരം കയറി വരേണ്ടത് കൊണ്ട് റെയിൽവേ പാളവും ഇപ്പോൾ എയർപോർട്ടും കാര്യങ്ങളൊക്കെ ആവണമെങ്കിൽ കുറച്ച് കൂടി ടൈം എടുക്കേണ്ടി വരും അപ്പം അതിനുള്ള സ്ഥലങ്ങൾ കാര്യങ്ങളൊക്കെ കിട്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ റെയിൽവേ പാളവും വിമാനത്താവളം ഒക്കെ വരുള്ളൂ ഇപ്പോൾ നമുക്ക് റോഡ് മുഖേനയുള്ള യാത്ര മാത്രമേ സാധിക്കുള്ളൂ പിന്നെ എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിസ്റ്റിക് അങ്ങനത്തെ പല തരം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് പിന്നെ ദേശീയ പാത മാത്രമായിട്ടാണ് മലയോര ഹൈവേ ഇപ്പം നമുക്കിപ്പോൾ ഒരു അ അ അന്തർ സംസ്ഥാനത്തേക്ക് പോവണമെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ റോഡ് മുഖേന മാത്രമേ പോകാൻ പ കഴിയുള്ളൂ മെയിൻ ആയിട്ട് നമുക്ക് റോഡ് മുഖേനയുള്ള യാത്രകൾ മാത്രമേ സാധ്യമാവുള്ളൂ